അതെ ഞാന് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങള് വായനാട്ടിലേക്ക് ഒന്ന് ടൂറ് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വയനാട്ടില് ഏതൊക്കെയാണ് നല്ല സ്ഥലങ്ങള് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ഞങ്ങള് കുട്ടീനെയൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഏതാണ് ഓക്കെ ഓക്കെ അതെ ഓക്കെ പിന്നെ വാട്ടർഫാൾസ്

ഓക്കെ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടുവല്ലേ അതെ ഉണ്ട് ഞങ്ങൾക്ക് തിരുനെല്ലി ടെംബിളിൽ പോകണമെന്നുണ്ട് അത് എങ്ങനെ

ഓക്കെ വേറേ അതെ തിരുനെല്ലി ആണല്ലെ അതെ ഞങ്ങളൊരു ഞങ്ങള് ഫാമിലിയാണ് ഒരു അഞ്ച് ആറ് പേര് ഉണ്ടാവും

അതെ സ്വന്തം വണ്ടിയിലാണ് വരുന്നത് പിന്നെ താമസ സൗകര്യത്തിനൊക്കെ ഉള്ളത് അതൊക്കെ ഓക്കെ ഓ അമ്പലത്തിൽ ഭക്ഷണം ഉണ്ട് ഓക്കെ ഓക്കെ ഞാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ